ഹലോ

ഹലോ വയനാട് റെസ്റ്റോറെൻറ്റ് അല്ലേ ആ ഞങ്ങൾ നിങ്ങളെ റെസ്റ്റോറെൻറ്റിലൊരു ഫങ്ങ്ഷൻ നടത്തണമെന്നുണ്ടായിരുന്നു ഒരു അടുത്ത മാസം ഒരു പത്താം തീയതി ഒരു ബി ഡേ ഫങ്ങ്ഷനായിരുന്നു അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പിന്നെ അതുപോലെ രണ്ട് ദിവസത്തെ ആക്കൊമഡേഷനും വേണ്ടി വരും ആ ഞങ്ങളൊരു പത്ത് നൂറ് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ള പിന്നെ റൂമും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേരുന്നെങ്കിൽ നല്ലതായിരുന്നു പിന്നെ അതിൻ്റെയൊരു പാക്കേജും അതിൻ്റെയൊരു റേറ്റൊക്കെ എങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞ് തരോ ഒരു രണ്ട് ദിവസത്തെ ആണോ എന്നാൽ മൂന്ന് ദിവസം ആയാലും കുഴപ്പമില്ല ഒരു നൂറാൾക്കാർ ആണോ ആ ആ കുറച്ച് കുറയ്ക്കാൻ പറ്റോ ഒരു റൂമ് റൂമ് കുറഞ്ഞതുണ്ടോ ആണോ ആ ആ ആ ഫുഡ് ദിവസവും മൂന്ന് നേരം ഉണ്ടാവൂലേ ഈ മൂന്ന് ദിവസം ആണെങ്കിലും മൂന്ന് സമയത്ത് വൈകുന്നേരത്തെ ചായയൊക്കെ ഉണ്ടാവില്ലേ

ആ ഞങ്ങൾക്ക് ട്രഡീഷണൽ ഫുഡ് ആയിരുന്നു വേണ്ടത് ഈ ആ പിന്നെ സദ്യയൊക്കെ ഉണ്ടാവോ ഒരു ദിവസം സദ്യയും പായസമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം ആ ആ അപ്പോൾ ആ ആ നിങ്ങൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിൻ്റെയൊരു മെനു ഞങ്ങൾക്കൊന്ന് വാട്സാപ്പ് ചെയ്യാമോ എന്നാൽ പിന്നെയൊരു ചാർട്ട് ഉണ്ടാക്കാമായിരുന്നു എന്താ വേണ്ടതെന്ന്

ആണോ ആ ആ അതുപോലെ ഫങ്ങ്ഷൻ നടത്താൻ വേണ്ടീട്ട് ഈ സ്റ്റേജൊക്കെ ഡെക്കറ് ചെയ്യൂലേ അതും ഓഡിറ്റോറിയം ഉണ്ടോ അത് സ്റ്റേജൊക്കെ നിങ്ങൾ തന്നെ ഡെക്കറ് ചെയുമോ ആ

ആ അതൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ ചെയുമായിരിക്കും അല്ലേ അപ്പോൾ അതെല്ലാം ഇൻക്ലൂട് ചെയ്തിട്ടാണോ ഈ ഒരു

ആ ആണോ ആ ആ ആ ഞങ്ങൾക്കപ്പോൾ ഒരു തീമ് പറഞ്ഞ് തന്നാൽ അതുപോലെ നിങ്ങൾ ചെയ്യുവല്ലോ അല്ലേ ഒരു കാർട്ടൂൺ തീമായിരുന്നു വേണ്ടത് ചെറിയ കുട്ടീടെ ഒരു തീമായിരുന്നു വേണ്ടത് അതൊക്കെ നിങ്ങൾ ആ ആ ആ

ആ എന്നാൽ ഞാൻ പിന്നെ അത് നോക്കീട്ടെന്താന്ന് വെച്ചാൽ ചെയ്യാം ഞാനൊന്നൂടെ വിളിക്കാം എന്നാൽ അത് കണ്ടിട്ട് ആ